ഹലോ ഗുഡ് മോണിംഗ് ഹലോ ഗുഡ് മോണിംഗ് ഡോക്ടറാണേ അതേ ആരാണിപ്പം സംസാരിക്കുന്നത് എന്താ പേഷ്യൻ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞോളൂ വയറു വേദനയോ മുമ്പുണ്ടാരുന്നോ വയറ് വേദന എത്ര കാലമായി തുടങ്ങിയിട്ട് രണ്ടു ദിവസം ആയതേ ഉള്ളൂ മുമ്പ് വയറ് വേദന ഉണ്ടായിരുന്നോ അതെ വേറെയൊന്ന് ട്രീറ്റ്മെൻ്റ് ചെയ്തിരുന്നുവോ എവിടെ ഹോസ്പിറ്റലിൽ പോയത് ആയുർവേദമാണോ അലോപ്പതി തന്നെ അതു ശരി ആ അലോപ്പതി ചെയ്തിട്ട് ഇപ്പം രണ്ട് മാസം ട്രീറ്റ്മെന്റ് നടത്തീനോ ഒരാഴ്ച്ചത്തെ മരുന്ന് കഴിച്ചു എന്നിട്ട് കുറവില്ല അതെ അത് കൂടുന്നത് എന്തുകൊണ്ട് ഭക്ഷണം എല്ലാം നേരെ കഴിക്കുന്നില്ലേ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അങ്ങനെ അൾസറോ കാര്യങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നോ അതു ശരി അപ്പോൾ അത് വേറെ അപ്പോൾ അത് നിങ്ങൾ അത് ഫോൺ വിളിച്ചതു കൊണ്ടിപ്പം കാര്യമില്ലല്ലോ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ കാര്യമില്ലല്ലോ നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിയില്ലല്ലോ നിങ്ങളെ ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം പിന്നെ

എല്ലാ ദിവസവും ഇല്ല ശനിയും ഞായറും ലീവാണ് ഞങ്ങൾ ശനിയും ഞായറും ഞാൻ ലീവ് വേറെ ഡോക്ടറ് ഉണ്ടാവും നമ്മളെ ഗവണ്മെന്റില് ശനിയാഴ്ച്ചയും ഞായറാഴ്ച്ചയും വന്നിട്ട് കാര്യമില്ല ശനിയാഴ്ച്ച ഞായറാഴ്ച്ച ഇല്ല എന്നാൽ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വരുന്നത് നല്ലത് എല്ലാ സമയത്തും ചിലപ്പോൾ പുറത്ത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ വരുന്ന സമയത്തൊന്ന് വിളിച്ചിട്ട് വരാം പിന്നീട് ബാക്കിയെന്നാൽ നിങ്ങൾ അതേ അപ്പോൾ ഈ ഈ ഇത് അസുഖം എന്നു പറഞ്ഞാൽ വയറ് വേദന അറിഞ്ഞ മുമ്പ് മുമ്പുണ്ടായിരുന്നെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിലിപ്പോൾ വയറു വേദനയായിട്ട് വരുന്ന ആയിരിക്കില്ല വയറു വേദന വയറിൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും കാര്യങ്ങളും കൊണ്ടെല്ലാം വെള്ളത്തിൻ്റെ പ്രശ്നനങ്ങൾ കൊണ്ടുവരാം പിന്നെ വേറെയെന്തെങ്കിലും രീതികളിൽ നമ്മുടെ വേറെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് വയറു വേദന അങ്ങനെ വരുന്നൊരവസരം ഉണ്ടാകും അതിപ്പം ഈ രണ്ട് മാസം മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം കഴിച്ച ഭക്ഷണം ചിലപ്പോൾ ഇപ്പോൾ ഇന്നലെ വരെ കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ അതും പറയാൻ വയ്യ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മരുന്ന് മരുന്നിപ്പോഴത് കഴിക്കുന്നുണ്ടോ ഇപ്പോൾ അതേ ഇപ്പോൾ കഴിക്കുന്നില്ല അത് അതിപ്പോൾ കഴിച്ചിട്ട് നിർത്തിയിട്ടെത്രയായി ഏഹ് രണ്ട് മാസമോ രണ്ട് മാസം ആ രണ്ട് മാസമായിട്ട് രണ്ട് മാസമായിട്ട് നിർത്തിയതാണോ ഓ അതു ശരി അപ്പോൾ ആ എപ്പോഴാണ് വരുന്നത് അവിടെ അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിദഗ്ധമായ എല്ലാ ചെക്കപ്പും ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്യേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാമുണ്ട് അപ്പോൾ അതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പേ വിളിക്കാം ഒന്ന് വിളിച്ചിട്ട് വരാം അപ്പോൾ ബാക്കി ട്രീറ്റ്മെന്റ് സ്കാൻ ചെയ്യണോ സ്കാൻ ആയി ആയി ആയി ഓക്കെ വിളിച്ചാൽ മതി